എൻ്റെ ശേഖരണങ്ങളായ സ്റ്റാമ്പ് നാണയം കല്ലുകൾ എന്നിവയെല്ലാം വേർതിരിക്കുന്ന പ്രക്രിയ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം അത് തീയതികൾ പരിപാടികളെ വ്യക്തിത്ത്വങ്ങൾ എന്നിവ എല്ലാമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് എൻ്റെ ശേഖരണത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നാണയങ്ങളാണ് ആ നാണയങ്ങളെൻ്റെ ഒരു പ്രത്യേക ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിപാടികളുമായിട്ട് എന്താ പ്രാധാന്യമുള്ളവയാണ് അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധമുള്ളതാണെന്നു പറയാൻ സാധിക്കും ഒരു പോലത്തെ തീയതികളും അതുപോലെയൊക്കെ എന്താ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്